ഗ്രാമപ്രദേശങ്ങളില് സാധാരണയായി ഉണ്ടാകാറുള്ളത് വഴി തര്ക്കങ്ങള് അല്ലെങ്കില് അതിര്ത്തി കള് തമ്മിലുള്ള തര്ക്കങ്ങളാണ് പ്രധാനമായിട്ടും പണ്ടുകാലങ്ങളിലാണ് അവ ധാരാളമായിട്ടും ഉണ്ടായിരുന്നത് കാലങ്ങളില് മതിലുകളൊന്നും വീടുകള്ക്ക് അല്ലെങ്കില് പറമ്പുകള്ക്ക് അതിരുകളായി മതിലുകളൊന്നും നിര്മ്മിക്കപ്പെടാത്തൊരു കാലത്തായിരുന്നു പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള തര്ക്കങ്ങള് ഉണ്ടാകു കാരുണ്ടായിരുന്നത് ഈ അടുത്ത ദിവസം നമ്മുടെ ഗ്രാമത്തിലുണ്ടായത് ഒരു വീട്ടിലേക്ക് വഴി വഴി ചോദിച്ച് കൊണ്ടുള്ളൊരു തര്ക്കമാണ് ഇ ഈ കാലഘട്ടത്തില് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ആളുകളങ്ങനെ വലിയ രീതിയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടുണ്ടാക്കുകയോ അല്ലെങ്കില് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്ന സമ്പ്രദായം വളരെ കുറവാണ് ഇപ്രാവശ്യം അങ്ങനെ വഴി തര്ക്കം ഉണ്ടാക്കിയും അവര് മാന്യമായിട്ടത് ആളു തര്ക്കം ഉണ്ടായിരുന്നു പക്ഷേ മാന്യമായിട്ട് മറ്റ് നാട്ടിലെ പ്രമുഖരുടെ ഒരു പങ്കാളിത്തത്തോടുകൂടി വലിയ ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ച് അവര് അ തര്ക്കത്തിന് ഒരു പരിഹാരം കാണുകയാണ് ഉണ്ടായത് അവര്ക്ക് വഴി ലഭിക്കുന്ന തരത്തില് രണ്ടുപേരും ഒരു നല്ല രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്കാണ് നിര്ത്തിയിട്ടുണ്ടായിരുന്നത്